സിനിമ മേഘലയിലെ കലകാരമാരെക്കുറിച്ച് റിപ്പോർട്ട് എഴുതുന്നതെല്ലാം സത്യസന്ധമാണ് കൃത്യമാണ് ആവശ്യമാണ് എന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല ഇവരുമായിട്ട് ബന്ധപ്പെട്ട വളരെയേറേ വളരെയേറെ വ്യാജ വാർത്തകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് മീഡിയകളിലെല്ലാം പ്രധാനപ്പെട്ട വാർത്തകൾ സിനിമ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അവിടെ നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്കുണ്ടായ ചർച്ചകൾ കോലാഹലങ്ങൾ അത് സിനിമ മേഘലയെ അപ്പാടെ അവരുടെ മാറ്റി മറിച്ചിരിക്കുകയാണ് സിനിമാ മേഘലയിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടിയെ പീഡിപ്പിച്ചതും അതു പോലെ തന്നെ വ്യാജ അതുപോലെ തന്നെ ലഹരിയുടെ അമിത ഉപയോഗവും അങ്ങനെയുള്ള കുറേയേറെ വാർത്തകൾ നമ്മൾ ഞെട്ടലോടെയാണ് കേൾക്കുന്നത് അമ്മ എന്ന താരസംഘടനയും അതിൻ്റെ ഭാരവാഹിത്വവും വഹിക്കുന്നവരുടെ അഭിപ്രായങ്ങളും അതൊക്കെ നമുക്ക് ഒരിക്കലും ഉൾകൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല പണ്ടു കാലങ്ങളിൽ വളരെ സത്യസന്ധമായ രീതിയിലാണ് ഈ സിനിമാ മേഘല കഴിഞ്ഞിരുന്നത് പണ്ട് കാലത്ത് ഈ സ്ത്രീ ജനങ്ങളൊന്നും ഈ മേഘലയിലേക്ക് എത്തിപ്പെടാൻ ഒട്ടും താല്പര്യം കാണിച്ചിരുന്നുണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽപ്പോലും ഷീല ജയഭാരതി അങ്ങനെയുള്ള നടിമാർ തൊള്ളാ തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടങ്ങളിലൊക്കെ ഈ സിനിമ മേഘലയിൽ വന്നപ്പോൾ അവരൊക്കെ ഒരുപാട് സഫർ ചെയ്താണ് ഈ മേഘലയിൽ അഭിനയിച്ചു കൊണ്ടിരുന്നത് ആൺ മേൽക്കോയ്മ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് അവർ ഈ മേഘലയിലേക്കു കടന്നു വന്നത് എന്നാൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ മോശമായ കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്നത് ഒരു നടിയെ പീഡിപ്പിക്കുക എന്നിട്ട് അതെല്ലാം ചാനലിലും ഒക്കെ വാർത്തയാക്കുക മറ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ഉള്ള ചർച്ച ഏർപ്പെട്ടിരിക്കുന്നവരുമായിട്ടുള്ള കണക്ഷൻസ് ലഹരിയുടെ അമിതമായ ഉപയോഗം ഇതെല്ലാം ഈ സിനിമ ഫീൽഡിനെ വളരെ മോശമാക്കിയിട്ടുണ്ട് എന്നാൽ വളരെ സത്യസന്ധമായ രീതിയിൽ ജീവിക്കുന്ന കലാകാരന്മാരും അവിടെ ഇല്ലാതെയില്ല ഈ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു കാരണവശാലും സത്യസന്ധമാകണമെന്നില്ല നൂറ് ശതമാനവും ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന കലയെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഉപജീവിന മാർഗ്ഗം നടത്തുന്ന ഒരു മേഘലയാണ് സിനിമ മേഘല എന്നു പറയുന്നത്

സിനിമയുടെ പോസ്റ്ററൊട്ടിക്കാൻ വരുന്ന സാധാ ഏറ്റവും താഴ്ന്ന ഏറ്റവും കുറഞ്ഞ മേഘ ഏറ്റവും കുറഞ്ഞ മേഘലയിലുള്ള ആൾ തൊട്ട് വളരേ നിർമ്മാതാവു വരെ അതിനിടയ്ക്ക് എത്രയോ ജനങ്ങൾ അവരുടെ ഉപജീവനത്തിനായി സിനിമയെ ആശ്രയിക്കുന്നുണ്ട് എന്നാൽ ഈ സിനിമാ ലോകം നേരിടുന്ന പ്രധാന പ്രശ്നം എന്നു പറയുന്നത് ആൺമേൽ കോയ്മ തന്നെയാണ് അവിടെ സ്ത്രീകൾ അഭിനയിക്കാനൊക്കെയായി വളരെയധികം സഫർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്നാൽ പേരെടുക്കാൻ വേണ്ടി പലരും പല രീതിയിൽ വ്യത്യസ്തങ്ങളായ സ്വഭാവ രീതികൾ വെച്ചു പുലർത്തുന്നവരും ഇല്ലായ്കയില്ല ഹാസ്യ കലാകാരന്മാരായ ജഗതി അതുപോലെ തന്നെ പപ്പു ആ കാലഘട്ടങ്ങളിലൊക്കെ സിനിമ വളരെ ജനങ്ങളെ വളരെ സ്വാധീനിച്ച സ്വാധീനിക്കുന്ന ഒരു മേഘല തന്നെയാണ് സിനിമ മേഘലയെന്നു പറയുന്നത് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടു കുട്ടികളിൽ ഉണ്ടാകുന്ന ലഹരിയുടെ ഉപയോഗം കുട്ടികളക്രമാസക്തരാകുന്നതൊക്കെ ഈ സിനിമാ കണ്ടു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മാർക്കോ പോലെയുള്ള സിനിമകളൊക്കെ പ്രദർശിപ്പിക്കുന്നത് നിർത്തി വെക്കണമെന്നു വരെ നമ്മൾ പറയുന്നത് കേട്ടു അപ്പം ജനങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു മേഘലയാണ് സിനിമ മേഘല അവിടേ പ്രവർത്തിക്കുന്ന കലാകാരന്മാർ മറ്റുള്ളവർക്ക് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി വളരേ ചെറിയൊരു അ ന്യൂനപക്ഷമായ അംഗങ്ങൾ മാത്രമേ അങ്ങനെ മോശമായ രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുള്ളൂ എന്നാൽ അത് ആ മേഘലയെ അപ്പാടെ ആ മേഘലയെ അപ്പാടെ താറുമാറാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഭാവി തലമുറയെ സ്വാധീനിക്കാൻ സ് ഭാവി തലമുറ സ്വഭാവത്തെ സ്വാധീനിക്കാൻ സിനിമയ്ക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് അവിടെ നിന്ന് വളരെ നല്ല വാർത്തകൾ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓരോ അഭിനേതാവും ഓരോ നിർമ്മാതാവും ഓരോ സംവിധായകനും എല്ലാവരും സത്യസന്ധമായ രീതികളിൽ പ്രവർ രീതി പ്രവർത്തിച്ച് മറ്റുള്ളവർക്കും മാതൃകയായി യുവതല ഒരു പുതിയ യുവതലമുറയെ വാർത്തെടുക്കുന്ന ഒരു സംവിധാനമായി സിനിമാ മേഘല മാറട്ടെ എന്നു നമ്മൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു